ചെടികളാണെങ്കിലും മരങ്ങളാണെങ്കിലും നമമുടെ വീട്ടിൻ്റെ ഉമ്മറത്ത് ചെടികളൊക്കെ വലുതായി അതൊക്കെ പൂക്കളക്കെയായി പുഷ്പിച്ചു നിൽക്കണ കാണാൻതന്നെ നല്ലൊരുഭംഗിയാണ് പല കളറുള്ള ചെണ്ടുമല്ലി റോസാപ്പൂ അതേപോലെ ചെമ്പരത്തി അങ്ങനെയുള്ള പൂക്കളൊക്കെ ഉമ്മറത്തൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന കാണാൻ തന്നെ രാവിലെത്തന്നെ വന്ന് കാണുമ്പോൾത്തന്നെ കണ്ണിനു കുളിർമയേകുന്ന ഒന്നാണ് അത് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷവും മനസ്സിന് ഒരു തണുപ്പും നൽകുന്നൊരു കാഴ്ച്ചതന്നെയാണത്